ഇപ്പോൾ സോഷ്യൽ മീഡിയയിലക്കെ വരുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾന്നക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലും ഇതുപോലത്തെ എന്താ പറയാ ട്രോളുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൂടുതലും അപ്പോൾ അത് ആൾക്കാരെ എങ്ങനെയാണ് ബാധിക്കാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയാ മാനസികമായിട്ട് അവരെ എന്താ പറയാ തളർത്തുന്ന രീതിയിലുള്ള ട്രോളുകളൊക്കെയാണ് കൂടുതലും കാണുന്നത് അപ്പോൾ അവരിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല റീച്ച് കിട്ടാൻ വേണ്ടിട്ടക്കേ ചെയ്യുന്നതായിരിക്കും പക്ഷേ ഇങ്ങനെ കുറെ ട്രോളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് പിന്നീട് ഒരു വീഡിയോ ചെയ്യാനോ അങ്ങനെയൊന്നും ഒരു ഇൻറ്ററഷൻ ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ട്രോളിലെക്കേ തുടർന്ന് കുറെ പേർ സൂയിസൈഡ് അങ്ങനെ കാര്യങ്ങളിലേക്കെക്കേ പോകുന്നവരൊക്കെ ഉണ്ട് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയേന്ന് എനിക്കങ്ങനെ മോശായിട്ടുള്ളൊരു അനുഭവവും കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ സൈബർ ഭീക്ഷണിയക്കേന്ന് പറയുമ്പോൾ കൂടുതലും ഇപ്പോൾ എന്താ പറയാ ക്യാഷ് ഇപ്പോൾ ഫോണിക്കൂടെയൊക്കെ വിളിച്ചിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ച് ഭീക്ഷണിപ്പെടുത്തുകയും ക്യാഷ് ആവശ്യപ്പെടുകയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇപ്പമുണ്ട് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട് അതൊക്കെ എന്താ പറയാ ഇന്നത്തെ സൈബറിൻ്റെയും സാങ്കേതിക വിദ്യകളുടെയൊക്കെ പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ട്രോളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്വാഭാവികായിട്ടും കോമണായിട്ടും എല്ലായിടത്തും തന്നെ ഉള്ളത് കൊണ്ട് അത് വലിയ കാര്യമായിട്ട് ഇപ്പോൾ ആളുകൾ അങ്ങനെ ശ്രദ്ധിക്കാറൊന്നും ഇല്ല അങ്ങനെക്കെയാണ് കുറെ കാര്യങ്ങളിപ്പോൾ നടക്കുന്നത്